പ്രാദേശിക പത്രങ്ങളിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള പ്രദേശം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാദേശിക പത്രങ്ങൾ വേണം അതുമാത്രമല്ല പ്രാദേശിക പത്രങ്ങളിലൂടെ നമ്മുടെ ഇൻഡ്യയിൽ നടക്കുന്ന നമ്മുടെ രാജ്യത്തു നടക്കുന്ന കാര്യങ്ങളെ അതുപോലെതന്നെ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിലെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഇതിനകത്തുണ്ട് കാരണം ഗവൺമെൻറ്റ് ഗവൺമെൻറ്റ് എന്തെങ്കിലും നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് നമു എന്നാൽ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ ആ അവസരമായിട്ടുള്ളവർക്കു കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പ്രായമായവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റ് തരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതൊക്കെ പത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കത്തുള്ളൂ കൂടുതലായിട്ട് ലഭിക്കുന്നത് പത്രങ്ങളിലൂടെയാണ് അതുപോലെതന്നെ നമ്മുടെ സ്പോർട്സായിട്ടും സ്പോർട്സിലൂടെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യമാണ് ചുറ്റും ലോകത്ത് നടക്കുന്ന മത്സരങ്ങൾ അല്ലേ ഒളിമ്പിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കു മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും സ്പോർട്സുകൾക്ക് ഏറ്റവും ഉന്നത തലത്തിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇൻഡ്യയിലാകുമ്പം കൂടുതലും ക്രിക്കറ്റിനു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ കാരണം പത്രങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഫുട്ബോളിനും മറ്റു കളികൾക്കും ഒക്കെ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം ഒരു സ്പോർട്സ് പേജ് തന്നെ എല്ലാ പത്രങ്ങളിലുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും പിന്നെ ബിസിനസ്സിനു വേണ്ടി ഒരു പേജുണ്ട് ആ ബിസിനസ്സിനു വേണ്ടിയുള്ള പേജിൽ നമ്മുടെ ബാങ്കിംഗ് രംഗത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ബാങ്കിൽ പുതുതായിട്ടു നടപ്പാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിലെ ഒരു കസ്റ്റമർ ഏതെല്ലാം രീതിയിലാണ് ഇടപെടേണ്ടത് അതേതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റ് അപ്പാണോ ഡൗണാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സമയമാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻഡ്യയുടെ അതുപോലെതന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക രംഗം ഏതു രീതിയിലേക്ക് മുന്നോട്ടുപോകുന്നു ഇപ്പോൾ ഇനിയും വരാൻ പോകുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരിക്കുമോ അതോ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടമായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആളുകൾക്കു പൊതുജനങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റോ നടത്തുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക അതു നമുക്ക് മറ്റുള്ളവരിലേക്കു പകരുകയും ചെയ്യാം കാരണം നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള എന്നാൽ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെതന്നെ ചുറ്റും നടക്കുന്ന മറ്റു ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പ്രാദേശിക പത്രത്തിലൂടെയാണ് കൂടുതലായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് പ്രാദേശിക പത്രമാകുമ്പോൾ ചുറ്റുമുള്ള ഏറ്റവും അടുത്ത പ്രദേശങ്ങൾ മുതൽ ഏറ്റവും ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലെയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പം അതുകൊണ്ട് അതൊക്കെ ഇന്നത്തെ ഒരു സാമൂഹിക ജീവിതത്തിൽ എല്ലാവരും അത്യാവശ്യമായിട്ട് ഈ പ്രാദേശിക പത്രം വായിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ എന്നാൽ പുതിയ പുതിയ വേക്കൻസികൾ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള യുവാക്കൾക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടു സാധിക്കും കാരണം അവർ അതിന് അപ്ലൈ ചെയ്യുകയോ ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയങ്ങളെ പറ്റി വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസ പേജുകളുണ്ട് ആ പേജ് അതിലൂടെ നമുക്ക് വിദ്യാഭ്യാസ നയങ്ങളെ പറ്റി മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ അറിവുകളും ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ പ ഈ പറയുന്ന പ്രാദേശിക പത്രം തീർച്ചയായിട്ടും അതേ കൂടുതലാളുകൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് എൻ്റെയൊരു അഭിപ്രായം